ആ ചേട്ടാ വരൂ ആ വരൂ ഏതു പൂവാണ് വേണ്ടത് അതെയല്ലേ ഓക്കേ നമ്മക്കിപ്പോൾ ഈ കാണുന്ന പൂവൊക്കെ ആ ഈ കാണണ പൂവൊക്കെയാണുള്ളത് ആ ഓക്കേ അപ്പോൾ തിരുവോണത്തിന് ഇടാനായിരിക്കും വലിയ പൂക്കളം ഇടാനാണ് അല്ലെ ആ നമ്മൾക്കിപ്പോൾ ഇപ്പോൾ ചെണ്ടുമല്ലിയുണ്ട് അതേപോലെ ഈ കാണുന്ന വാടാമല്ലി അതേപോലെ ഈ കാണുന്ന പൂവൊക്കെയുണ്ട് ഓക്കേ അപ്പോൾ നമ്മൾക്ക് ആ ഇതിനൊക്കെ കിലോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അല്ല ഈ ചെണ്ടുമല്ലി ആ ഈ ചെണ്ടുമല്ലിത്തന്നെ ഉള്ള കളറൊക്കെ സെയിം റേറ്റ് ആണ് അതേപോലെ ഇപ്പോൾ തെച്ചി അതേപോലെ വാടാമല്ലി ജെമന്തി ഇതിനൊക്കെ സെപ്പറേറ്റ് റേറ്റ് വ്യത്യാസമുണ്ടാകും ഇല്ല അത് നമ്മള് നല്ല പൂക്കളാണ് നമ്മള് മറ്റേ കെമിക്കലൊന്നും യൂസ് ചെയ്യാത്ത നമ്മുടെ നാട്ടിൻപുറത്തെ തന്നെയാണ് നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്ന തന്നെയാണ് നമ്മള് ഓണത്തിന് ഈ കുടുംബശ്രീക്കാര് കൃഷി ചെയ്യുന്നതാണ് ഇവിടുത്തെ നാട്ടിൻപ്രദേശത്തെത്തന്നെ അപ്പോൾ അതിൻ്റെ ആ അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മള് ഫ്രഷായിട്ട് നമ്മള് എടുക്കണതാണ് ടെൻഡർ പോലെ വിളിച്ചെടുക്കണ നല്ല പൂവൊക്കെത്തന്നെ എല്ലാം അപ്പോൾ ഇത് വാടിപ്പോവുകയൊന്നും ഇല്ല അത്രപെട്ടെന്ന് അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ ചെണ്ടുമല്ലി മഞ്ഞക്കളറ് എത്ര കിലോ ആണ് വേണ്ടത് പത്തു കിലോ അല്ലേ ഓക്കേ അതേപോലെ ഇനിയിപ്പോൾ ഈ ഓറഞ്ച് കളർ ചെണ്ടുമല്ലിയോ ഓക്കേ ഇനിയിപ്പോൾ മറ്റേ വാടാമല്ലി വാടാമല്ലിയിൽത്തന്നെ രണ്ടു കളർ വരുന്നുണ്ട് ഇത് രണ്ടും എടുക്കണോ ഓക്കേ അപ്പോൾ ഇത് രണ്ടുമെടുക്കാം പിന്നെ ജമന്തിയോ ജമന്തിക്ക് എൺപതു രൂപയാണ് റേറ്റ് ആ കിലോ എൺപത്

വേറെ തെച്ചിയുണ്ട് അതേപോലെ പിച്ചി തെച്ചി കുറച്ചെടുക്കാമല്ലേ അതൊരു രണ്ടു കിലോ പോരെ രണ്ടു മൂന്നു കിലോ ഉം പിച്ചിയോ ആ രണ്ടു കിലോ അതിനും അതിന് എന്താണ് എൺപത്തഞ്ച് തൊണ്ണൂറിനും ഇടയിലാണ് അത് കളർ മാറുന്നത് അനുസരിച്ചിട്ട് റേറ്റ് അഞ്ചുരൂപ പത്തുരൂപേന്റെ വ്യത്യാസം ഉണ്ട് അത്രയേയുള്ളു ഇല്ലയില്ല ഇല്ല ഇത് പിന്നെ ആ ആ അലറി വേണോ അലറിപ്പൂ അതും അത് അമ്പതു രൂപയാണ് കിലോ വരുന്നത് ഇതില് അലറിയിൽത്തന്നെ മഞ്ഞയും ഒരു ഓറഞ്ച് കളർ പോലത്തെ രണ്ടു കളർ വരുന്നുണ്ട് കളർ വ്യത്യാസമുണ്ട് ഈ കാണുന്ന രണ്ട് കളർ വ്യത്യാസമുണ്ട് ഇത് രണ്ടും ആ അതെയല്ലേ മിക്സിഡായിട്ട് എടുക്കാമല്ലേ ഓക്കേ പിന്നെ ഈ കാണുന്ന നീലപ്പൂ കണ്ടോ ഇതിപ്പോൾ പുതിയ പൂവാണ് ഇത് ഇതെടുക്കണോ ഈ ചെറുത് ഒക്കെ അപ്പോൾ നമുക്ക് പൂവൊക്കെ എടുക്കാം നിങ്ങൾക്കിപ്പോൾ മറ്റന്നാളല്ലേ തിരുവോണത്തിന് ഇടാൻ വേണ്ടിയിട്ട് അല്ലെ ആ അപ്പോൾ നമുക്ക് ഇത് ഇന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് വെള്ളം നനച്ചു വച്ചാൽ മതി കൊണ്ടുപോവുകയാണെങ്കിലേ ഒന്ന് വെള്ളം നനച്ചു വച്ചാൽ മതി വാടിപ്പോവുകയോ കേടുവന്നു പോവുകയുമൊന്നുമില്ല നല്ല ഫ്രഷ് പൂവാണ് ഇല്ലില്ല നല്ല ഫ്രഷ് പൂവാണ് വാടിപ്പോവുകയൊന്നുമില്ല ഒന്ന് വെള്ളം തളിച്ച് വെച്ചാൽ ഇടയ്ക്കൊന്നു വെള്ളം തളിച്ചു വിട്ടാൽ മതി ഓക്കെ ഓക്കെ ഓക്കെ ശരി ഇതെടുക്കാമല്ലേ അപ്പോൾ ഓക്കേ റെഡി